ഞാൻ ഇൻഷുറൻസ് ഓൺലൈനായ് പുതുക്കാൻ വേണ്ടി കഫേല് നിക്കാണ് ഇവിടെ വന്നപ്പോഴാണ് ഇൻഷുറൻസ് രേഖകളുടെ കോപ്പി വേണമെന്ന് മനസ്സിലായത് അവർക്ക് ഡിജിറ്റൽ കോപ്പി ആയാലും മതി എന്നാണ് പറഞ്ഞത് ഡിജി ലോക്കറിൽ വഴി എനിക്ക് അത് ആക്സസ്സ് ചെയ്യാൻ പറ്റും എനിക്ക് വേണ്ടി ആ ഇൻഷുറൻസ് രേഖകളുടെ സ്കാൻഡ് കോപ്പിസ് ഒന്ന് ഡിജി ലോക്കറിൽ അപ്ലോഡ് ചെയ്ത് തരാമോ